ആ ചേച്ചി ഞങ്ങൾ ഇവിടെനിന്ന് സ്ഥലം മാറി പോവുകയാണല്ലോ അത് കൊണ്ട് ഞങ്ങൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ എന്റെ പാസ്പ്പോട്ട് കേരളത്തിൽനിന്ന് എടുത്തതല്ലേ അതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ആ പാസ്പ്പോട്ടിന്റെ അത് എങ്ങനെയാണ് അതിന് വേറെ അപേഷ കൊടുക്കണോ അതിന് വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ എനിക്കൊന്ന് പറഞ്ഞ് തരാമോ അതിന് വേണ്ട രേഖകളൾ എന്തൊക്കെയാണ് തമിഴ്നാട് ആയത് കൊണ്ട് നമ്മുടെ കേരളത്തിൽനിന്ന് എടുത്ത പാസ്പ്പോട്ട് അല്ലേ അപ്പം അതിന് എന്തെങ്കിലും പ്രശ്നം വരുമോ അതെന്താണ് അതിന്റെ ചെയ്യേണ്ടത് അതിന് വേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്നൊക്കെ എനിക്കൊന്ന് പറഞ്ഞ് തന്നാൽ വലിയ കാര്യമാവും ചേച്ചിക്ക് അറിയാമോ ഇത് ആവുമെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായിത്തീര്ന്നേനെ എനിക്ക് അതൊന്ന് ചെയ്ത് തരണം അതിന് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൾ എനിക്ക് എത്രയുംപെട്ടെന്ന് ഒന്ന് പറഞ്ഞുതന്നാൽ വളരെ ഉപകാരമായിരുന്നു കേട്ടോ